ഹലോ

ഹലോ ആ ആ

ആ അതെ അതെ പറഞ്ഞോളൂ

ടൂറിസ്റ്റ് മേഖല ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലേ ആ ഇവിടെ കാരാപ്പുഴ ഡാമുണ്ട് പിന്നേ മീനങ്ങാടിലേക്ക് ഇന്ന് മീനങ്ങാടിലേക്ക് പോകുന്ന വഴിക്ക് കാക്കവയലിൽ നിന്ന് റൈറ്റ് പോയാലാണ് ആ റൂട്ടാണ് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള വഴി കേട്ടോ പിന്നെ ഇവിടെ കാരാപ്പുഴ ഡാമിൽ ഒരുപാട് കാണാനൊക്കെ ഉണ്ട് നല്ല സ്ഥലമാണ് അതുപോലെതന്നെ നമുക്കിവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഫുഡ് എല്ലാമുണ്ട് പിന്നേ സിപ്പ് ലൈന് കുട്ടികൾക്ക് പാർക്ക് എല്ലാ സംവിധാനവും ഇവിടെ അവൈലബിളാണ് കുറേ നേരമായി ആ ഹോട്ടല് അടുത്താണ് പിന്നെ നിങ്ങൾക്ക് താമസിക്കാൻ റൂമ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൂമൊക്കെ അറേഞ്ചെ് ചെയ്തുതരും ഫുഡ് ഏതൊക്കെയാണെന്നു വെച്ചാൽ നമുക്കിവടെ ഉണ്ടാക്കുകയും ചെയ്യാം ഇവിടെ കിച്ചണൊക്കെ ഉണ്ട് നിങ്ങൾ സാധനം വാങ്ങി വന്നിട്ട് ഇവിടെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഹോട്ടലിൽ തന്നെ എല്ലാ വേണ്ട ഫുഡും അവൈലബിളാണ് ആണ് വേറെ മീൻമുട്ടി വെള്ളച്ചാട്ടമുണ്ട് പിന്നേ ബാണാസുര ആ ഇടക്കൽ ഗുഹയുണ്ട് അമ്പലവയലിൽ ആ ആ പിന്നെ പിന്നെ വരുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് തൊള്ളായിരംകണ്ടി ആ അത് അവിടേക്ക് വണ്ടി പകുതി വരയെ പോകുള്ളൂ പിന്നെ അവിടെ നിന്ന് നമുക്ക് അവിടെ ജീപ്പുണ്ട് ജീപ്പിനാണ് അങ്ങോട്ടേയ്ക്ക് യാത്രക്കാരെ എത്തിക്കാറുള്ളത് ആ പിന്നെ വൈത്തിരി നമുക്ക് എണ്ണൂര് എന്നു പറഞ്ഞിട്ട് വേറൊരു എന്താ പറയുക ആദിവാസികളുടെ ഒരു സംഭവങ്ങൾ ഉണ്ട് ഊരുകളായിട്ട് അവിടേയ്ക്ക് ഒക്കെ നല്ല പിന്നെ പൂക്കോട് തടാകം ആ നിങ്ങൾ എത്ര പേരാണ് വരുന്നത് അതെയല്ലേ ആ അപ്പോൾ എന്നാണ് ഡേറ്റ് എന്നാണെന്നു പറയാൻ പറ്റുമോ നമുക്ക് ഇവിടെ ബുക്ക് രണ്ടാം തീയ്യതി ആണല്ലേ ആ ആ അപ്പോഴത്തേക്ക് ഞാൻ എല്ലാം അറേഞ്ചെ് ചെയ്തുതരാം നിങ്ങൾ വിളിച്ചാൽ മതി എന്നാൽ

ആ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലേസാണ് കാണേണ്ടത് എന്ന് ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ മതി ആ ആയിക്കോട്ടെ എന്നാൽ ശരി ഓക്കെ